ആ അതെ ചിതറ എ എം എം ഹോസ്പിറ്റൽ അല്ലേ ഞാൻ ആർച്ച ആണെ എനിക്ക് അവിടുത്തെ ഫെസിലിറ്റീസിനെ പറ്റി ഒന്ന് അറിയാൻ ആണ് ഞാൻ വിളിച്ചത് അതായത് ഈ ഈ വരുന്ന ഡിസംബർ ഇരുപത്തിയൊന്നിന് എനിക്ക് ഒരു സർജറി ഉണ്ടേ അപ്പോൾ അതും ആയിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ ആണേ വിളിച്ചത്

ആ അതെ അതെ മുട്ടിൻ്റെ തേയ്മാനത്തിന് അതിന് വേണ്ടി ആണ് സർജറി അപ്പോൾ ഡോക്ടറ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നെ ആ അതെ അതെ പറഞ്ഞു പറഞ്ഞു മാത്രം അല്ല കൂടെ എത്ര പേരെ നിർത്താൻ സാധിക്കുന്നത് ഓ കോവിഡ് ടെസ്റ്റ് നെഗറ്റീവ് ആയിരിക്കണം അല്ലേ ആ ഓക്കേ ഓക്കേ ആ അപ്പോൾ കൂടെ നിൽക്കുന്ന ആളിന് സ്റ്റേ ചെയ്യാൻ എന്തെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടോ അവിടെ ആ ആ ഓക്കേ ഓക്കേ എത്രയാണ് അവിടെ റേറ്റ് വരുന്നത് പേ വാർഡിന് ആ അപ്പോൾ പേ വാർഡിൽ എങ്ങനെയാണ് ടിവിയും ടോയ്ലറ്റ് ഒക്കെ ഉണ്ടോ സെപ്പറേറ്റ് ആയിട്ട് ആ ഓക്കേ ഓക്കേ അപ്പോൾ ഫുഡ്ഡും കാര്യങ്ങളൊക്കെയോ ആ ഓക്കേ ഓക്കേ അപ്പോൾ എ സി ആ എ സി ഉള്ളത് മതി ആ അപ്പോൾ അത് ബുക്ക് ചെയ്തോളൂ ആ ഓക്കേ ഓക്കേ അത് ബുക്ക് ചെയ്തോളൂ ആ പിന്നെ ആ സർജറിയുടെ തുക ഹെൽത്ത് കാർഡ് വെച്ച് ആണേ അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ ഹെൽത്ത് കാർഡ് എടുക്കുമോ എടുക്കുമല്ലോ അല്ലേ അല്ലേ ആ ആധാർ കാർഡിൻ്റെ അല്ലേ പേഷ്യൻറ്റിൻ്റെ ആധാർ കാർഡും പിന്നെ എന്തൊക്കെയാണ് ആ ഓക്കേ ഓക്കേ ആ ഇല്ല ഇല്ല മറ്റൊന്നും ഇല്ല ഓക്കേ താങ്ക്യൂ